എല്ലാ മതത്തിലും സാമൂഹിക സേവനത്തെ കുറിച്ചും സാമൂഹിക സ്നേഹത്തെ കുറിച്ചും മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്ത് അനുവർത്തിച്ച് വരേണ്ട പല കാര്യങ്ങളെ കുറിച്ചും പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല പക്ഷെ എല്ലാ മതത്തിലും ജീവിച്ച് വളർന്ന് വരുന്ന ആൾക്കാരും ഇത് ഓരോ മതത്തിൽ ആയാലും ഓരോ സമൂ സമൂഹത്തിൽ ആയാലും നമ്മൾ ഇത് കണ്ട് വളർന്ന് വരുന്നതിന് അനുസരിച്ച് പഠിച്ച് വരുകയാണ് ചെയ്യുക ഇന്ന മതത്തിൽ ഇന്ന സാമൂഹിക സെ സേവനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ട് ഒരു ഇതുമില്ല ഇപ്പം എൻ്റെ ഒരു എൻ്റെ മതം ഹിന്ദു മതമാണ് ഇപ്പം ഞാൻ പണ്ടു മുതലേ കണ്ട് പഠിച്ച് വരുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ഇടയിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവേശമോ ഒരു ബന്ധുവിൻ്റെ ആവണമെന്നില്ല അന്യൻ്റെ അയാൽ പോലും നമ്മൾ പിന്നെ നമ്മൾ പോയി സഹായിക്കും അവിടെ അപ്പം അത് എന്താണ് അത് ഒരു സാമൂഹിക സേവനമാണ് ഇപ്പം നമ്മൾ നമ്മളെ ആരും ആയിരിക്കില്ല പക്ഷെ നമ്മൾ എന്താക്കണം നമ്മളെ നാട്ടിലുള്ള ഒരാളാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ വെച്ച് നമ്മൾ അവിടെ പോയിട്ട് പരമാവധി എല്ലാ കാര്യങ്ങൾക്കും സഹായവും അവിടെ ചിലവഴിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പം അതേപോലെ തന്നെ എല്ലാ മതത്തിലും ഇങ്ങനെ ഉണ്ടാകും